ഹലോ മിനീ നമുക്ക് ജ്ഞാനത്തിന് പോകണ്ടേ ആഹ് എവിടാണ് പോകുന്നേ പതിനഞ്ചാം തീയതി നമുക്ക് മുരിങ്ങ്യൂരോ മണക്കരയോ എങ്ങാനും പോകാം ആഹ് അവിടാണ് നല്ല ധ്യാനകേന്ദ്രം അവിടാണ് ആഹ് അവിടെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് അല്ല ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് വെള്ളിയാഴ്ച വരെയാണ് അവിടെ ധ്യാനം അവിടെ താമസ സൗകര്യം ഒക്കെ ഉണ്ട് അവിടെ ധ്യാനത്തിനു പോയിട്ടുള്ളൂരൊക്കെ പറയുന്നു നല്ല ധ്യാനമാണെന്ന് പറയുന്നു എമൌണ്ട് അഞ്ഞൂറാണെന്നാണ് എനിക്കു തോന്നുന്നത്

ആഹ് താമസ സൗകര്യം ഉണ്ട് പോയിട്ടുലൊരൊക്കെ പറയുന്നു അവിടെ താമസ സൗകര്യം ഒക്കെ ഉണ്ട് നല്ല സൗകര്യം ആന്ന് അച്ഛമ്മാരുണ്ട് നല്ല ബ്രദേഴ്സ ഉണ്ട് പിന്നെ അവിടത്തെ ഡൊമിനിക് അച്ഛന് നല്ല ജ്ഞാനഗുരു ആണ് ആഹ് അച്ഛന്റെ ധ്യാനവും അച്ഛന്റെ ആശീർവാദവും ഒക്കെ നല്ല അനുഗ്രഹം ഉള്ളതാന്നാണ് പറയുന്നത് ആഹ് നമുക്ക് ഫാമിലി ആയിട്ടും പോകാം അല്ലാതെയും പോകാം ബസ്സോണ്ട് ചങ്ങനാശ്ശേരിന്ന് ഒറ്റ വണ്ടിയുണ്ട് കുമളി വണ്ടിയിൽ കയറിയാൽ നമുക്ക് അവിടെ ഇറങ്ങാം

പിള്ളേർക്ക് കണ്സെഷൻ ഉണ്ടോന്ന് കൃത്യമായിട്ട് അറിയത്തില്ല നമ്മളല്ലെങ്കിൽ അവിടെ വിളിച്ച് ചോദിക്കണം

ആഹ് നംബര് തരാം എന്റെ കയ്യിൽ നംബരുണ്ട് സിജോനിനെ പറ്റി എനിക്ക് അറിയത്തില്ല ആഹ് നമ്മൾ കോട്ടയിലൊക്കെ അവിടെ ആൾക്കാർ പറയുന്നുണ്ട് അണക്കര എന്റെ മോൾ പോയിട്ടുള്ള അറിവ് വെച്ചാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് നല്ല ധ്യാനകേന്ദ്രമാന്ന് കുഞ്ഞ് പറഞ്ഞത് കൊണ്ട് നമുക്ക് അവിടത്തോ അവിടൊട്ട് പോകാം എന്നാണ് എന്റെ താല്പര്യം ആഹ് സിയിലും നല്ലെയാണ് എല്ലായിടവും ധ്യാനകേന്ദ്രങ്ങൾ എല്ലാം നല്ല അനുഗ്രഹം ഉള്ളതാന്നല്ലോ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ കുന്നംതാനത്തും ഉണ്ടല്ലോ ആഹ് ആ സിസ്റ്റെർസിന്റെ ആണ് അവിടെ അച്ഛൻമാരും ഉണ്ട് അവിടെയും നല്ലതാന്നാണ് പറയുന്നത് എന്തോ അത് രണ്ട് കൂട്ടരുടെയും നല്ലതാണ് ക്ലാസ് എടുക്കാൻ ഒക്കെ സിസ്റ്റേഴ്സും ഉണ്ട് അച്ഛൻമാരും ഉണ്ട് ബ്രദേഴ്സും ഉണ്ട് അവർ നമുക്ക് കാര്യമായിട്ട് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് തരുന്നുണ്ട് എന്തോ ആരാധന ഉണ്ട് ആഹ് അച്ഛന്റെ ആശീർവാദം ഉണ്ട് അച്ഛന്റെ ആശിർവാദം ഒക്കെ ഉണ്ട് ഡൊമിനിക് അച്ഛന്റെ ആ അഞ്ഞൂറ് രൂപ ആണെന്നാണ് തോന്നുന്നത് ഞാൻ വിളിച്ച് നംബർ തരാം അന്നേരം മിനി വിളിച്ച് ചോദിക്ക് ആഹ് നല്ല ഭക്ഷണമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ മാത്രം അല്ലല്ലോ അഞ്ഞൂറ് രൂപയാന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ വിളിച്ച് നോക്കിട്ട് പറയാം കൃത്യമായിട്ട് വിവരങ്ങൾ ഞാൻ അറീക്കാം ഓക്കെ ആഹ്